വാർത്തയില് കാണിക്കുന്ന കാര്യങ്ങള് മിക്കവാറും പിന്നെ ഒരു തൊണ്ണൂറു ശതമാനം വളരെ സത്യമായിട്ടുള്ള കാര്യമാണ് എങ്കിലും നല്ല നല്ല ചാനലുകളൊക്കെ നല്ല രീതി തന്നെയാണ് കാര്യങ്ങള് വർത്തകളൊക്കെ കാണിക്കുന്നത് തെറ്റായ ഇതൊന്നും കണിക്കാറില്ല പിന്നെ എന്തെങ്കിലും ഈ വളർന്നു വരാത്ത ചാനലുകളൊക്കെയാണെങ്കില് അങ്ങനൊക്കെയുള്ളതായിരിക്കിക്കും കാണിക്കുന്നത് വ്യാജ വർത്തകള് കേട്ടിട്ടുണ്ട് എന്തായിരുന്നു എവിടെങ്കിലും എന്തെങ്കിലും സ്ഫോടക വസ്തുക്കള് ഉണ്ടെന്നോ പറയുന്നത് അത് കണ്ടുപിടിക്കുവാൻ അത് ഒരു പോലീസുകാരൻ അന്വേഷണ ചെന്നപ്പഴേക്കും അവിടത് കണ്ടില്ല അത് വ്യാജ വാർത്തയായിരുന്നു എന്ന് പറയുന്നത് അത് കേട്ടിട്ടുണ്ട് സമൂഹത്തെ നല്ല വർത്തകള് നല്ല രീതീ തന്നെ നല്ല ചാനലുകള് നല്ല വാർത്തകള് സമൂഹത്തെ വളരെ നല്ല രീതി തന്നെയാണ് ന്നത് ഉദാഹരണമായി മനോരമ ചാനല് വളരെ നല്ല രീതി തന്നെ പോകുന്നതും പിന്നെ ജനങ്ങളുടെ ഇടയില് അവര് അവർക്ക് അവരുടെ ഒരു മതിപ്പ് വളരാൻ നല്ല രീതി തന്നെയാണ് അതുപോലെ മറ്റുള്ള എല്ലാ ചാനലുകളും മിക്കവാറും തന്നെ എല്ലാ ചാനലുകളും നല്ല നല്ല രീതിയിലുള്ള വാർത്തകളാണ് അവര് കൊണ്ടുവരുന്നത് വാസ്തവം സത്യം തിരിച്ചറിഞ്ഞതിന് ശേഷമുള്ള വർത്തകള് മാത്രമേ അവര് കൊണ്ടുവരത്തുള്ളൂ വ്യാജ വാർത്തകളാണെന്നുണ്ടെങ്കിലൊരു ചാനലിലൊരു വ്യാജ വാർത്ത കേള്ക്കുകയാണെന്നുണ്ടെങ്കില് പിന്നെ നമ്മളൊരു സത്യാവസ്ഥ വാർത്തകള് അതിനകത്ത് പറഞ്ഞാലും അവര് നമുക്ക് ആ ചാനല് ഇന്നാള് പറഞ്ഞത് തെറ്റാണല്ലോ ആ ചാനലുകള് ഇന്നാള് പറഞ്ഞ വാർത്ത തെറ്റാണല്ലോ അപ്പോള് അത് കാരണം നമുക്ക് ആ ചാനലിനോടൊരു വെറുപ്പ് തോന്നാറുണ്ട് അത് സ്വാഭാവികമാണ് അവര് പറഞ്ഞ കാര്യങ്ങള് ഒരു പ്രാവശ്യം തെറ്റൊരു പ്രാവശ്യം ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞാലും പ്രത്യേകിച്ച് ജനങ്ങളുടെ ഇടയിലത് കേള്ക്കുമ്പഴ്ത്തേക്കും അവരുടെ പറഞ്ഞ വാർത്തകളെല്ലാം വ്യാജമാണ് എന്നേ പൊതുവെ ജനങ്ങള് പറയാറുള്ളു